ഗ്രാമത്തിലുള്ളവർക്ക് സംരംഭം തുടങ്ങാനെന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത് ഇന്ത്യയുടെ ഉൾനാട്ടിലെ സംരംഭങ്ങൾ പിന്തുണയ്ക്കാൻ എന്തൊക്കെ നമുക്കു ചെയ്യാൻ കഴിയും ഗ്രാമത്തിലുള്ള സംരംഭങ്ങൾ പലപ്പോഴും വെൾ വെളി നാട്ടിലെ മാർക്കറ്റുകളിൽ കച്ചവട സ്ഥ സ്ഥലങ്ങളിൽ എത്തുന്നതിൽ എത്താൻ കഴിയാതെ പോകുന്നുണ്ട് വ്യവസായത്തിലെ ട്രാൻസ്പ്പോട്ടേഷൻ സിസ്റ്റം പിന്നെ അടിസ്ഥാനമായ ചില വികസനങ്ങൾ ഇതെല്ലാം ഗ്രാമത്തിലെ സംരംഭങ്ങൾക്കു വെല്ലുവിളികളാണ് ഇപ്പോഴത്തെ ഓൺലൈൻ മാർക്കറ്റിനെപ്പറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ സാധനങ്ങൾ വിൽക്കുന്ന വിദ്യയെ പറ്റി ഉൾ നാടുകളിലെ പലർക്കും അറിയില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് കൃത്യമായ പരിശീലനങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്നും ചെയ്യേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഗവൺമെൻറ്റിനു സൃഷ്ടിക്കാൻ ക പറ്റിക്കഴിഞ്ഞാൽ ഉൾനാട്ടിലെ വ്യവസായങ്ങൾ വളരാൻ സാധിക്കുന്ന വളരുവാൻ സാധിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് ഇപ്പം ഉൾ നാട്ടിലെ കാട്ടിലൊക്കെയാണെങ്കിൽ ഈ തേനീച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം തേനെടുത്തു പുറത്തോട്ടു കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം അങ്ങനത്തെ കച്ചവടത്തിനൊന്നുമൊരു ബ്രാൻറ്റായിട്ട് അങ്ങനെ ഒരു കമ്പനിക്കാരോ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഈ ഉൾനാട്ടിലെ ആൾക്കാർ ചേർന്ന് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ബ്രാൻറ്റോ അങ്ങനെയെന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല വ്യവസായം ആയിരിക്കും അപ്പം തന്നെ അതിന്റെ കൂടെ ഗവൺമെൻറ്റിനിതിനെന്തെങ്കിലും സ്കീമോ സബ്സീസിഡിയൊ സാമ്പത്തികമായിട്ടുള്ള ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതും അവർക്കും ഉൾ നാട്ടിലെ ബിസ്ക്കച്ചവടക്കാർക്കും ഒരുപാട് ബെനഫിറ്റായിരിക്കും പിന്നെ ഈ കച്ചവടം പല കച്ചവടങ്ങൾ അതായത് ഈ കാട്ടിലൂടെ തന്നെ ഈ തേൻ തേനീച്ച ആയിട്ട് ബന്ധപ്പെട്ട പലതരം കച്ചവടങ്ങൾ ചെയ്യാൻ പറ്റും പിന്നേ പിന്നെ ഈ ഏലം ഇങ്ങനത്തെയൊക്കെ കച്ചവടങ്ങളുണ്ട് പിന്നെ അതൊക്കെ പലർക്കും ഈ മാർക്കറ്റിലെ എത്തിക്കാനുള്ള കച്ചവടം പുറത്തു മാർക്കറ്റിലെത്തിക്കാനുള്ളൊരു സംവിധാനം ഉൾ നാട്ടിലെ കച്ചവടക്കാർക്ക് കിട്ടാറില്ല പിന്നെ പുറത്തെ മാർക്കറ്റിനെ പറ്റിയുള്ള അറിവും കുറവായതുകൊണ്ടു തന്നെ അവിടെ പല സാഹചര്യത്തിലും അവർക്ക് കച്ചവടം കിട്ടാതെ പോകുന്നുണ്ട് പിന്നെ ലോണൊക്കെ എടുത്താൽപ്പോലും നമുക്ക് കറക്റ്റായിട്ടു തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നുള്ള പല പ്രശ്നങ്ങളും അവരെ പ്രശ്നം ഉണ്ടാകാറുണ്ട് പല വിഷയങ്ങളിലും ആത്മഹത്യ എന്നു പറയുന്ന സാഹചര്യങ്ങളിലോട്ടു പോലും എത്തിക്കുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഗവൺമെൻറ്റ് മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠനങ്ങൾ നടത്തി സംരംഭകരെ പഠിപ്പിച്ചുകൊണ്ട് ഒരു നയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉൾ നാട്ടിലും നല്ല നല്ല വ്യവസായങ്ങൾ വളരും